ഇപ്പോൾ ചെടികളായിക്കോട്ടെ മരങ്ങളായിക്കോട്ടെ നമ്മൾ ഇപ്പോൾ നമ്മൾ ഒരു ചെടി നട്ടുവളർത്തുകയാണെങ്കിൽ അതിപ്പോൾ നമ്മൾ നടുമ്പോൾ തൊട്ട് നമുക്ക് ഒരു ആൻക്സൈറ്റി തന്നെയായിരിക്കും അപ്പോൾ ഞാനൊക്കെയെന്ന് പറയുമ്പോൾ ഒരു ചെടി ആദ്യം കൊണ്ടുവന്ന് തൈ ആയിട്ട് കൊണ്ട് വെച്ചുകഴിഞ്ഞഴിഞ്ഞാൽ വെക്കുന്നൊരാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കെയറിങ് ആയിരിക്കും ഡെയ്ലി പോയി വെള്ളം ഒഴിക്കും അത് വളരുന്നുണ്ടോയെന്ന് നോക്കും അതിനു വേണ്ട ഇത് വളങ്ങളൊക്കെ എവിടെങ്കിലും കിട്ടൂമെന്നൊക്കെ നോക്കി നല്ല കാര്യമായിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോകും കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ തിരിഞ്ഞു പോലും നോക്കാറില്ല അതൊക്കെ കഴിഞ്ഞ് കുറെ നാളൊക്കെ കഴിഞ്ഞ് അത് വലുതായി അതിനൊത്തിരി പൂവോ പോട്ടെ എന്തെങ്കിലും ഒരു കായൊക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ് നമുക്ക് എന്താ പറയുക പറയാൻ പറ്റാത്തൊരു സന്തോഷം കാരണം നമ്മൾ എല്ലായിടത്തും ഓടി നടന്നിട്ട് പറയും അത് ഞാൻ നട്ടതാണ് അതിനകത്ത് ദേ കായുണ്ടായി അല്ലെ പൂ ഉണ്ടായി കണ്ടോ എന്ത് രസാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആൾക്കാരോട് പറയും അത് പൊതുവെ എല്ലാവരും തന്നെ അങ്ങനാണെന്നാണ് എൻ്റെയൊരു നിഗമനം ഞാൻ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് അങ്ങനെന്നെയാണ് അപ്പോൾ ഞാനിപ്പോ അങ്ങനെ ചെടി നട്ടിട്ടൊക്കെ ഇണ്ടെങ്കി എനിക്കെന്താ പറയുവാ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ് കാരണം നമ്മൾ നട്ട് വളർത്തിയ ഒരു ചെടിയിൽ പൂവ് കാര്യങ്ങളോ എന്തെലും പഴങ്ങളൊക്കെ ഉണ്ടായി നിക്കുന്നത് കാണുമ്പോ നമ്മക്കൊരു സന്തോഷമാണ് അത് വേറെ ആരോടെലും പ ആരെങ്കിലും വന്ന് പറിക്കാൻ ശ്രേമിച്ചാലോ അതൊക്കെ നമുക്ക് ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യംതന്നെയായിരിക്കും അപ്പോൾ നമ്മൾ നട്ടുവളർത്തുന്ന ചെടി നമ്മുക്കെന്നും ഒരു വല്യ കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്